ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റു രാജ്യങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ഒട്ടും മോശമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് കാരണം ഏറ്റവും മികച്ച നല്ല അധ്യാപകരും നല്ല കോളേജുകളും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് പക്ഷേ കൂടുതലും കുട്ടികള് പുറത്തോട്ട് പോകാനൊക്കെ താൽപര്യം കാണിക്കുന്നു എങ്കിലും മറ്റു രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നതാണ് കുറേക്കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലായിട്ടും നമ്മുടെ ഇടയില് വിദ്യാഭ്യാസം നന്നായിട്ട് കൊടുക്കുമെങ്കിലും കൂടുതലും തിയറിക്ക് പ്രാധാന്യം നൽകി പ്രാക്ടിക്കൽ നോളേജുകള് വളരെ കുറവുള്ളതായിട്ടാണ് എനിക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ കേരളത്തില് പഠിക്കുന്ന കുട്ടികളിൽ കൂടുതലും തിയറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ നോളജ്കള് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പുറത്തെ പക്ഷേ കുറെ കൂടുതലായിട്ടും പ്രാക്ടിക്കൽ നോളേജിന് കൂടുതല് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പിന്നെ സ്കൂള് നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെയാണേലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കൂടുതലായിട്ടും കുട്ടികൾക്ക് പഠിക്കുന്നതിന് വളരെ പണച്ചെലവ് വേണ്ടി വരുന്നുണ്ട് ഫീസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഫീസ് കുട്ടികളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും വീട്ടുകാരെ കൊണ്ടും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ആവുമ്പോഴേക്കും അവര് കുറെ കൂടെ ഒക്കെ പാർട് ടൈം ജോബ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കില് അവര് കുറെയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാനൊക്കെ ശ്രമിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോരാഞ്ഞ് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യയില് അതുകൊണ്ടാണ് കൂടുതലും കുട്ടികളും മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ ചേക്കേറി പോകുന്നത് കാരണം അവിടൊക്കെ എന്തെങ്കിലും ജോലി പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് അവിടെയൊക്കെ അവിടെത്തന്നെ താമസിക്കാനുള്ള സൗകര്യവും കൂടൊക്കെ അവര് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവിടെ കൂടുതലും ആൾക്കാര് പോകാൻ താൽപര്യപ്പെടുന്നു നമ്മുടെ ഇടയില് അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം കൂടെ വരുത്തുകയാണെങ്കിൽ നല്ലതായിരിന്നു കുട്ടികൾക്ക് പഠന സമയം കുറച്ചുകൊണ്ട് കുറച്ച് സമയം കുറച്ചുനേരെ നേരത്തെ കൂടെ നേരത്തെ ആക്കിയാല് കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്താണെങ്കിലും പൈസ ഉണ്ടാക്കാനും സ്വന്തം കാര്യം ചെയ്യാനും ഒക്കെ സാധിക്കും കുട്ടികൾക്ക് അതൊരു ആത്മവിശ്വാസവും വർദ്ധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇടയില് വിദ്യാഭ്യാസ സമ്പ്രദായത്തില് മറ്റ് ലാംഗ്വേജില് അതായത് ഈ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കില് നമ്മുടെ പല നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കൂടുതലും ഇംഗ്ലീഷിനൊക്ക കുറെ കൂടെ പ്രാധാന്യം കൊടുത്ത് കുട്ടികള് മറ്റ് ലാംഗ്വേജസിന് ഒക്കെ കുറെ കൂടെ പ്രാധാന്യം കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പുറത്തോട്ടൊക്കെ പോകുവാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ തന്നെ വേറൊരു പുറത്തോട്ട് പോയില്ല മറ്റൊരു ഇൻ്റർവ്യൂനൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അതൊന്ന് നന്നായിട്ട് പിള്ളേർക്ക് ഒന്ന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഷ ഒരു പലപ്പോഴും നമ്മുടെ ഇവിടെ ഇവിടത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അത് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ അല്ലെങ്കിൽ മറ്റ് ഭാഷ ഹിന്ദി മറ്റു ഭാഷകള് ഒക്കെ കൂടുതലായിട്ടും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു അവസരം കൂടുതലായിട്ട് കൊടുക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ മറ്റ് ഇന്ത്യയി തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോയാലും കുട്ടികൾക്ക് കുറെ കൂടെ ഒക്കെ പിടിച്ചുനിൽക്കുവാനൊക്കെ ഒരു കപ്പാസിറ്റി കിട്ടും അതായത് ഇവിടെ ഇനി ഇപ്പം ഡൽഹിയിലോട്ടൊക്കെ പോയി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആണെലും ഹിന്ദി ലാംഗ്വേജ് അറിയാമെങ്കിലും വായിക്കാനും എഴുതിയാലും അറിയാമെങ്കിലും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതുപോലെ ഭാഷയിൽ കുറച്ചും കൂടെ ഭാഷ പഠിപ്പിക്കുന്നതില് കൂടുതല് അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്കില്ല് കൂടി വളർത്തിയെടുക്കുവാന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിക്കുകയാണേൽ നല്ലതായിരുന്നു പിന്നീട് നമ്മുടെ വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് മാത്രമായില്ലല്ലോ കുട്ടികൾക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കില് ഇവിടെ ജോലി കിട്ടത്തില്ല ഇവിടെ കൂടുതലും സംഭരണത്തിൽ പോകുന്നത് കാരണം കൂടുതൽ മറ്റ് ജാതിയിലുള്ള അതായത് ക്രിസ്ത്യൻ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികള് കൂടുതലും പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു കാരണം ഇവിടെ ജോലി സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മുടെ ജോലിക്ക് പറ്റിയ ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള പഠന സമ്പ്രദായങ്ങള് അതായത് ജോലിക്ക് കൂടുതല് ചാൻസ് ഉള്ള കൂടുതല് പഠന സമ്പ്രദായങ്ങള് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കേരളത്തിലെ കാര്യം വച്ച് നോക്കുകയാൽ നഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ നഴ്സിങ്ങിന് പോകും ഡോക്ടർ ആകാൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു അതേ ഒരു കാര്യത്തിനുവേണ്ടിട്ട് പോകും അങ്ങനെ ചില ചില വിഷയങ്ങളിൽ ഇപ്പോൾ കാരണം കൂടുതല് ജോലി സാധ്യത ഉള്ള വിഷയങ്ങള് നോക്കി കുട്ടികൾ അങ്ങ് പഠിച്ചു പോകുന്നു അങ്ങനെ ഒരു ആ ട്രെൻഡിങ് രീതി മാറ്റി മറ്റ് അത്യാവശ്യം നല്ല വിജയ വിജയസാധ്യത ഉള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്തും ആ കോഴ്സുകൾക്ക് പ്രാധാന്യം കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ കൂടെ ഒന്ന് ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണെങ്കിൽ കുട്ടികളെല്ലാം ഒരേ രീതി തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടത്തോടെ പാലായനം ചെയ്യുന്ന രീതിയിൽ നിന്നും ഒക്കെ ഒരു വ്യത്യാസം നമ്മുടെ ഇടയിൽ ഉണ്ടാവും അതുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസരംഗം മോശം ആണെന്നല്ല അത് കുറെക്കൂടെ മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങള് ജോലി സാധ്യതകൾക്ക് അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഇതൊക്കെ വളർത്തിയെടുക്കുന്നതും വിദ്യാഭ്യാസ മേഖലയില് ഫീസ് അതൊക്കെ കുട്ടികളെക്കൊണ്ട് താങ്ങാൻ പാരൻസിനെ കൊണ്ടും ഒക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കുകയാണെങ്കില് ഇവിടെ തന്നെ കുട്ടികളൊക്കെ കൂടുതലായിട്ടും നിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്